സാർ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് പിന്നെ ഡിഗ്രി പഠനം ഞാൻ വിദേശത്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ എൻ്റെ പാസ്പോർട്ട് ഒന്ന് അപ്പ്ഡേറ്റ് ചെയ്യണമായിരുന്നു അതിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടായിരുന്നു പിന്നെ അതിന് വേണ്ടി സാറിനോട് കുറച്ച് സംസാരിക്കണം അതിന് വേണ്ടിയാണ് ഞാൻ വന്നത് പിന്നെ പാസ്സ്പോർട്ട പാസ്സ്പോർട്ട് റെഡി ആക്കിയാൽ മാത്രമേ എനിക്ക് ഇതിന് വേണ്ടി അപേക്ഷ അയയ്ക്കാൻ സാധിക്കുകയുള്ളു കാരണം മൂന്ന് വർഷത്തെ കോഴ്സ് ആണ് പിന്നെ സാറിനെ അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം എനിക്ക് നല്ല താൽപ്പര്യത്തോട് കൂടിയാണ് നിൽക്കുന്നത് പിന്നെ വീട്ടുകാർക്കും നല്ല താൽപ്പര്യമുണ്ട് പോകുന്നതിനെ കുറിച്ച് അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം കാരണമെന്ന് പറഞ്ഞാൽ പാസ്സ്പോർട്ട് ഓഫീസിൽ പോയിട്ട് ആണെങ്കിലും ഇല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടാണ് എങ്കിലും ഇപ്പം അപ്ഡേറ്റ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട് പിന്ന സാറിനെ ഞാൻ ഡിഗ്രി പഠനത്തിന് വേണ്ടി അങ്ങോട്ട് പോണതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയാം കാരണം എനിക്കും അത് കുറച്ചും കൂടെ നല്ല ഐഡിയാസ് കിട്ടാൻ അത് ഉപകരിക്കും അത് കൊണ്ടാണ് ഞാൻ സാറിനോട് അതിനെ കുറിച്ച് അന്വേഷിക്കുന്നതും പിന്നെ പിന്നാ പാസ്സ്പോർട്ട് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വേണം എനിക്ക് അവിടെ ആ യൂണിവേഴ്സിറ്റിയിൽ വിളിച്ചു ഒന്ന് ചോദിക്കാൻ ചോദിച്ചതിന് ശേഷം എന്താണെന്ന് വച്ചാൽ അവർ പറയും പോലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്